ആഴമേറിയതോ അർത്ഥം ഉള്ളതോ ആയ ചിത്രങ്ങളൊന്നും ഇതുവരെ വരച്ചിട്ടില്ല നമുക്ക് ചെറിയ ഇങ്ങനെ വരയ്ക്കാൻ അറിയാമെന്നു മാത്രമേയുള്ളു അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ വരച്ചിട്ടില്ല എനി ഇപ്പോൾ ക്യാറ്റ് പൂച്ചേൻ്റെ അല്ലെങ്കില് നമ്മുടെ കാർട്ടൂണിലെ ചിത്രം കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചിത്രങ്ങൾ മാത്രമേ ഇതുവരെ വരച്ചിട്ടുള്ളൂ പിന്നെ ആഴമേറി ചിന്തിക്കുന്ന ഒന്നും ഇതുവരെ വരച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളൊരു വീട് ഒരു മല ഒരു മരം ഒരു സൂര്യൻ അങ്ങിനൊക്കെയാണ് വരച്ചിട്ടുള്ളത് പിന്നെ എന്താ പറയുക ആഹ് അങ്ങനത്തെ ചിത്രങ്ങളൊക്കെയേ വരച്ചിട്ടുള്ളൂ ഇങ്ങനെ ആഴമേറി ചിന്തിക്കാനും അർത്ഥതലങ്ങളുള്ള ചിത്രം ഒന്നും ഇതുവരെ വരച്ചിട്ടില്ല ഇനി വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അതിനിപ്പം പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു നല്ലൊരു ചിത്രം വരയ്ക്കണം എന്നാണ് ആഗ്രഹം